ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാന്ഡ് മാർക്ക് മാർക്കായി ഞാൻ കരുതുന്നത് താജ്മഹൽ ശ്രീപദ്മനാഭസ്വാമിക്ഷേത്രം പിന്നേ ഇടുക്കി ഡാം പിന്നേ തെന്മല ഡാം എന്നിവയാണ് താജ്മഹൽ മൈസൂർ പാലസ് മൈസൂർ ഗാഡൻ മൈസൂർ സൂ ഷാജഹാൻ കൊട്ടാരം മെറീനാ ബീച്ച് മെറീനാ ബീച്ച് കേരളത്തിലേ കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീപദ്മനാഭസ്വാമിക്ഷേത്രം ആറ്റുകാൽക്ഷേത്രം കൊടുങ്ങല്ലൂർക്ഷേത്രം എന്നിവയും കൂടാതെ ലാൻഡ്മാർക്കുകളായിട്ട് സ്വാമീ ശ്രീപദ്മനാഭാസ്വാമി ക്ഷേത്രമെന്ന് പറയാന് കാര്യം അവിട്ത്തേ പ്രധാനപ്പെട്ട അറകളും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളും മറ്റുമാണ് ഒരുപാട് ലാന്ഡ് മാര്ക്കുകളുണ്ട് കേര ഇന്ത്യയിൽ ഒരുപാട് ലാന്റ് മാർക്കുകളുണ്ട് അത് വിനോദസഞ്ചാരകേന്ദ്രങ്ങളായും ഇപ്പോൾ പ്രവർത്തിക്കുന്നു വിനോദസഞ്ചാരകേന്ദ്രങ്ങളായും ഇപ്പോള് പ്രവർത്തിക്കുന്നു കൂടാതെ കാശി രാമേശ്വരം എന്നിവ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലാൻ് മാർക്കുകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നവയാണ് ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ലാന്ഡ് മാർക്കുകളും വിനോദസഞ്ച